ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പഠി പഠിച്ചിട്ട് കേട്ടിട്ടുള്ളൊരാളാണ് പഴശ്ശിരാജാവ് പഴശ്ശിരാജാവിനെ കുറിച്ച് പറയുകയാണെങ്കില് അദ്ദേഹം ജനിച്ചത് ആയിരത്തിയെഴുന്നൂറ്റി അൻപത്തിമൂന്നില് കണ്ണൂരിൽ വെച്ചിട്ടാണ് ജനിച്ചിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ കേരളത്തിനു വേണ്ടി ധീരമായി പോരാടി പിന്നെ പഴശ്ശിരാജാവ് പിന്നെ വേ ഇപ്പോൾ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു കേരളസിംഹം എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് പിന്നെ പഴശ്ശിരാജാവ് ബ്രിട്ടിഷുകാരുടെ വെടിയുണ്ടക്ക് ഇരയാകില്ലയെന്ന് അദ്ദേഹം തീരുമാനിച്ച് സ്വയം വീരമൃത്യു വരിച്ചു എന്നാണ് ഇദ്ദേഹം പറയപ്പെടുന്നത് പഴ പഴശ്ശിരാജാവ് അവസാന ശ്വാസം വരെ പിന്നെ അവസാ അവസാന ശ്വാസമെന്നോണം കാത്ത് സൂക്ഷിച്ചു നമുക്കു വേണ്ടി ദി പിന്നയാളുടെ മരണം ആയിരത്തിയെണ്ണൂറ്റി അഞ്ചില് അയാളുടെ മരണം ഇരുപതാം വയസ്സിലാണ് കേട്ടോ നമുക്കു വേണ്ടിയിട്ട് ഈ രാജ്യത്തേറ്റുമുട്ടാന് അയാളിറങ്ങിയത്